ഹലോ ആ എന്താണ് വിളിച്ചത് മാഡം എന്തു പറ്റി അയ്യോ എന്താണ് അവൻ അങ്ങനെ അവൻ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ അവന് അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ എൻ്റെ അറിവിൽ അവൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്താണ് നിങ്ങൾ എൻ്റെ മോനെക്കുറിച്ച് തന്നെയാണോ സംസാരിക്കുന്നത് ഞാൻ എൽ ഞാൻ വരണോ വീട്ടിൽ സ്കൂളിൽ അങ്ങനെ എൻ്റെ മോൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ അത്ര നല്ല കുട്ടിയായിട്ടാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്

മിസ് എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് അങ്ങനെ അവനെക്കുറിച്ച് അങ്ങനെയൊരു പരാതി ഇതുവരേയും എവിടെയും കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നല്ലോ അവൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ലല്ലോ പിന്നെ എന്താണ് അങ്ങനെ ആയിപ്പോയത് സ്കൂളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ അവൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണ് സ്കൂളിൽ അവൻ മാത്രമേ ഇങ്ങനെ ഉള്ളോ അവൻ്റെ കൂടെ വേറെ പിള്ളേർ ഉണ്ടോ

അല്ല അവൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനമാണോ കൂടെ വേറെയും പിള്ളേർ ഉണ്ടോ എന്ന്

എന്താണ് ടീ ടീച്ചറിനോട് ഇപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എൻ്റെ കൊച്ച് കേടുവന്നതിന് നിങ്ങളോട് വഴക്കിട്ടിട്ട് കാര്യമില്ലല്ലോ ഉം എന്നാലും തക്ക സമയത്ത് വിവരം വിളിച്ചറിയിച്ചതിന് നന്ദിയുണ്ട് അല്ലാതെ ഇപ്പോൾ എന്ത് പറയുക

ഉം ഓക്കെ ടീച്ചറേ നമുക്ക് വരുമ്പം കാണാം